ഞാൻ പല പല എൻ്റെ സുഹൃത്തുക്കളുടെ കൂടെയും അതുപോലെ തന്നെ മറ്റു റൈഡർമാർറെ കൂടെയും യാത്ര നടത്തീട്ടുണ്ട് ചെറുപ്പം മുതലേ ബൈക്ക് റൈഡ് എന്ന എൻ്റെ ഹോബിയും പാഷനും കോളേജില് എത്തിയിട്ടും ഞാൻ മുന്നോട്ട് കൊണ്ട് പൊക്കൊണ്ടിരിക്കാറുണ്ട് ഞങ്ങൾ പ്രധാനമായും യാത്ര പ്ലാൻ ചെയ്യുന്നത് സ്ഥലത്തിൻ്റെ മഹിമ നോക്കിയല്ല ഭൂപ്രകൃതിക്ക് ഇണങ്ങിയ രീതിയിലാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത് മാലിന്യങ്ങൾ വരിയിൽ വലിച്ച് എറിയാതെ അതുപോലെ തന്നെ പ്രകൃതിക്ക് യാതൊരു തരത്തിലുള്ള ദോഷവുമില്ലാതെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് ഈ യാത്രകൾക്കായി ഞങ്ങൾ കുറച്ച് കാലങ്ങളായി തെരഞ്ഞെടുക്കുന്നത് ഇലക്ട്രിക് വാഹനങ്ങളാണ് ഇലക്ട്രിക് ബൈക്കുകൾ ഈ സ്കൂട്ടറുകൾ മുതലായവയാണ് ഞങ്ങൾ ഇതിനായി പ്രധാനമായും പുപ്പിള് തെരഞ്ഞെടുക്കാറ് പ്രധാനമായും ഇവ തെരഞ്ഞെടുക്കുന്നതിൻ്റെ കാരണം പൊല്യൂഷൻ കുറക്കുക അന്തരീക്ഷത്തില് ഉണ്ടാകുന്ന മാലിന്യങ്ങൾ കുറക്കുക എന്നൊക്കെയാണ് ഇതിൻ്റെ പ്രധാന കാരണങ്ങൾ എൻ്റെ കൂടെ റൈഡുകൾക്ക് വരുന്നത് പ്രധാനമായും എൻ്റെ സുഹൃത്തുക്കളും മറ്റ് സഹപ്രവർത്തകരുമാണ് അവർ സമയം കണ്ടെത്തുന്നതും ഞാൻ സമയം കണ്ടെത്തുന്നതും രണ്ട് രീതീലാണ് ഞാൻ സമയം കണ്ടെത്തുന്നെന്ന് പറയുമ്പോൾ എൻ്റെ കോളേജിൽ ഞങ്ങൾ ബ്രേക്ക് കിട്ടുന്ന സമയങ്ങളിലാണ് ഞാൻ സമയം കണ്ടെത്തുന്നത് അവർ സമയം കണ്ടെത്തുന്നത് അവറെ ജോലികൾക്കിടയില് പല പല പ്രായക്കാർ ആണ് എൻ്റെ സുഹൃത്തുക്കള് അപ്പോൾ അവർ സമയം കണ്ടെത്തുന്ന അവരുടെ ജോലികളെ തിരക്കേറിയ ജോലികൾക്കിടയിലാണ് അവസാനമായി ഞാൻ പോയ ബൈക്ക് റൈഡ് തമിഴ്നാട്ടിലേക്കായിരുന്നു തെങ്കാശി തേനി ഒക്കെ കൂടിയാണ് നമ്മൾ പോയത് അതുപോലെ തന്നെ ഞാൻ ഇതിന് പണ്ട് കുറച്ച് നാള് മുമ്പുകളിൽ ഞാൻ പോയൊരു റൈഡായിരുന്നു ഹിമാലയം റൈഡ് പല പല സംസ്ഥാനങ്ങൾ കടന്നായിരുന്നു ഞാൻ ആ റൈഡ് പോയത് അന്ന് ഞാൻ ഉപയോഗിച്ച വാഹനം പെട്രോൾ ആയിരുന്നു പെട്രോൾ ബൈക്ക് അപ്പോൾ നമ്മുടെ അന്തരീക്ഷത്തിൽ രൂപപ്പെടുന്ന മലിനീകരണത്തിൻ്റെയും മറ്റും ആപത്ത് ഞങ്ങൾ മനസ്സിലാക്കി ഇപ്പോൾ ഞങ്ങൾ പൂർണ്ണമായി ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് കടന്ന് കഴിഞ്ഞു പ്രകൃതിക്ക് അത്ര അധികം ദോഷമില്ലാതെ എന്നാൽ ചെറിയ രീതീൽ ദോഷമുള്ള ഇലക്ട്രിക് വാഹനങ്ങൾ